ഇന്ത്യയുടെ ചരിത്രമെടുത്ത് നോക്കാണെങ്കില് കൂടുതൽ ഇന്ത്യ എന്ന് പറയണത് ഒരു സാംസ്കാരിക രാജ്യമാണ് ബാക്കി രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ടാണെങ്കില് പഴയകാലം ഏറ്റവും കൂടുതല് മധ്യ കാലഘട്ടത്തിലാണ് കൂടുതൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി മറിഞ്ഞത് ഇതിന് മുൻപും പഴയ കാലത്ത് എവിടെയോ ആ പുരാതന കാലഘട്ടത്തിലൊക്കെ പല രാജാക്കന്മാർ ജീവിച്ച് ജീവിച്ച് മരിച്ചിട്ടുണ്ട് അതില് ഒരു രാജവംശമായിരുന്നു ഈ ചോള രാജവംശം തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിൽനിന്നാണ് അതിൻ്റെ തുടക്കം അതിൽ പല കരുത്തുറ്റ നേതാക്കന്മാരും നേതാക്കന്മാരുമുണ്ട് കാര്യമായിട്ട് ഹിന്ദുമതമാണ് വിശ്വാസം വിജയാലയ ചോളനായിരുന്നു അത് തുടങ്ങിവെച്ചത് ശേഷം പഴയ കാലഘട്ടത്തിലാണ് രാജചന്ദ്ര ചോളൻ അങ്ങനെ പല രാജാക്കന്മാരും കടന്നുപോയിട്ടുണ്ട് പക്ഷെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോള് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വരവോട് കൂടിയാണ് കാരണം ഇന്ത്യയില് മൊത്തമായിട്ട് ഇന്ത്യയുടെ മാറ്റം ഇന്ത്യയുടെ പഴയകാലം മറ്റേ ഒക്കെ എടുത്തു നോക്കാണെങ്കിൽ മുഗൾ രാജവംശം ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ളത് വലിയൊരു ഇന്ത്യയിൽ തന്നെ വലിയൊരു രാജ്യമായി ഭരിച്ചിരുന്ന ഒരു സമയമായിരുന്നു മുഗൾ രാജവംശജരൊക്കെ ഭരിക്കുന്ന ടൈമിൽ അക്കാലത്ത് അക്ബര് ജഹാംഗീര് ഹുമയൂണ് പല നേതാക്കന്മാരും അതില് കടന്നു പോയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ ഇഷ്ടമുള്ളത് അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ് കാരണം അദ്ദേഹം അദ്ദേഹമാണ് ഈ മുഗൾസാമ്രാജ്യത്തെ ഉന്നതിയിൽ എത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യം ഇന്ത്യയ്ക്ക് കൊടുത്തിട്ടുള്ള വളരെ വലിയ കാര്യങ്ങളൊക്കെ ഇന്നും നിലനിന്നു പോകുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് പ്ലേസായ താജ്മഹല് ചെങ്കോട്ട ഇതൊക്കെ മുഗൾ സാമ്രാജ്യം ഉണ്ടാക്കിയതാണ് അക്ബർ ചക്രവർത്തിയെ കുറിച്ച് പറയുവാണെങ്കിൽ അക്ബറാണ് ഈ മുഗൾ സാമ്രാജ്യത്തെ ഏറ്റവും ഉന്നതിയിൽ എത്തിച്ചത് മുഗൾ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായാണ് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം ഏകദേശം ആയിരത്തി അഞ്ഞൂറുകളിലാണ് ജീവിച്ചിരുന്നത് എന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കില് അങ്ങനെയാണ് ജീവിച്ചിരുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നത് മഹാനായ അക്ബർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഹുമയൂണിൻ്റെ മകനായിട്ടാണ് അക്ബർ ചക്രവർത്തി ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ ചക്രവർത്തി കെട്ടോ ശക്തമായ ഭരണം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആയിരുന്നു അക്ബർ